ഞാനിപ്പോൾ ഒരുപാട് പ്രാദേശികഭാഷകൾ ഉള്ള ചാനൽ ചാനലുകളും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ അതായത് വില്ലേജ് എന്താ വില്ലേജ് ചാനലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുറേ തമിഴന്മാരുടെ അതായത് അവർക്ക് ഒരുപാട് മില്യൺ വ്യൂസും കാര്യങ്ങളൊക്കെയുള്ള ആ ഒരു ചാനൽ കാണാറുണ്ട് കാരണമെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കുക്കറി ഷോ അതായത് അവർ കുറേ അതായത് വല്യ കുക്കിംഗ് ഒക്കെയാണ് ചെയ്യുക അപ്പം അതൊക്കെയെന്നുവച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കാണുന്നു അതായത് അവരതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നതും അപ്പോൾ ആ ഒരു കുക്കറി ഷോ കാണാറുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മലയാളത്തിൽ അത്പോലെത്തന്നെ നമ്മൾക്ക് വേറൊരു ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിലൊരു കുക്കിംഗ് ചാനൽ ഉണ്ട് അത് കാണും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എം ഫോർ ടെക്ക് അങ്ങനത്തെ കാണും പിന്നെ തമിഴിലും ഒരുപാട് ചാനൽ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് മലയാളം തമിഴ് തന്നെയാണ് ഞാൻ കൂടുതലും കാണാറ് തമിഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴിലിലെ സിനിമകൾ ടി വി ഷോകൾ നല്ല സിംഗേഴ്സ് അതായത് സിംഗിംഗ് ഷോസ് അങ്ങനത്തെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് തന്നെ അതായത് അതുപോലത്തെ വിനോദപരിപാടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടും